സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകൾ വളരെ നല്ലതാണ് അവർ നമ്മളെ വല്ല ബുദ്ധിമുട്ടുന്ന സമയത്ത് ഹെല്പ് ചെയ്യാറുണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി ഈ സ്ത്രീകൾക്കുള്ള തൊഴിലിനു വേണ്ടി ഉള്ള സ്ഥാപനം സംരംഭങ്ങളാണ് അവസരങ്ങളാണ് കുടുംബശ്രീ അതേപോലെ സ്വയംതൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് സെൻ്ററുകൾ മുതലായവ ചെറിയ ചെറിയ ചെറുകിട വ്യവസായങ്ങൾ പോലെ സ്ത്രീകളെ കൊണ്ട് സ്വന്തമായി ഒന്നുകിൽ ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് അങ്ങനെയെല്ലാം ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ നൽകാൻ ആയിട്ടും ചെയ്യിപ്പിക്കാൻ ആയിട്ടും കുടുംബശ്രീ വഴി തൊഴിലുറപ്പ് വഴിയൊക്കെ ഇന്നത്തെ സർക്കാർ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൻറെ ഭാഗമായി ചെയ്യുന്നുണ്ട് സ്ത്രീകൾ സ്വന്തം വീട്ടിൽ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുക അച്ചാറുകൾ ഉണ്ടാക്കുക ചെറിയ ചെറിയ പലഹാരങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കി ഒരു നീതി സ്റ്റോറിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്റ്റോറുകളിൽ കൊണ്ടുപോയി കൊടുത്ത് ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം തൊഴിലുറപ്പ് വഴി അല്ലെങ്കിൽ കുടുംബശ്രീ വഴി ഒക്കെയാണ് സ്ത്രീകൾക്ക് ഈ ചെറിയ തൊഴിലിൻ്റെ പരിശീലനം നൽകുന്നതും അവ അവരാണ് അതിനുള്ള ആൾക്കാരെ കണ്ടെത്തുകയും ചെയ്യുന്നത്